സാങ്കേതികവിദ്യ കാരണം വിനോദം നിങ്ങൾക്കെങ്ങനെ മാറിയിരിക്കുന്നെന്നു ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒര് ഇപ്പം ഞാൻ ഡിഗ്രി ഫർസ്റ്റ് ഇയർ പഠിക്കുന്നൊരു കുട്ടിയാണ് ഞാൻ ഒര് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഏഴ് എട്ട് എട്ടാം ക്ലാസ് തൊട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ് മൊബൈൽ ഫോൺ വന്നേപ്പിന്നെ തൊട്ട് മൊബൈൽ ലൈക്ക് സാങ്കേതിക മൊബൈലന്നൊരു സാങ്കേതികവിദ്യയാണല്ലോ അപ്പം പിന്നെ കായിക വിനോദം കൂടുതലും മൊബൈൽ ഫോണിലായിട്ടുണ്ടെങ്കിൽ ഗെയിമുകളിൽ പിന്നെ വീഡിയോ കാണല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ തന്നെ അല്ല ഒട്ടുമിക്ക ആളുകളുമിപ്പോൾ അവരുടെ സമയം ചിലവാക്കുന്നത് അങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നേ പക്ഷേ എന്തുകൊണ്ടന്നാണ് അത് ഒട്ടും നല്ല കാര്യമല്ല അങ്ങനെയൊന്ന് ഇവിടെ മൈൻഡില് നമ്മുടെ മാനസിക ഇത് മൊത്തം ലൈക്ക് ഫോണിലേക്കായി പോകുമ്പോൾ ഭയങ്കര മോശം കാര്യമാണ് മോശം എന്ന് പറയാൻപറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഫോണുമായിട്ടുള്ള പാ ഫോണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഫോണുമായിട്ടുള്ള സമ്പർക്കം കുറക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ള പിന്നെ പറയാൻ ഇപ്പം എന്താ പറയുക മാറി ഈ കാലത്ത് ആളുകള് ഫോണും വീഡിയോ ഈ കാലത്ത് ലൈക് ഇപ്പം എല്ലാവരും തന്നെ ഫോണിലൊക്കെയാണ് ഇപ്പം എല്ലാവരും തന്നെ ഫോണിലൊക്ക ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒക്കെ അപ്പയാണെങ്കിൽ പോലും ഈ കുറച്ച് ഈ അടുത്തകാലംതൊട്ട് അപ്പയ്ക്കും സ്മാർട്ട് ഫോൺ വന്നേ പിന്നെതൊട്ട് അപ്പയും ഫോണിൽ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ വളരെ നല്ല രീതിയില് തന്നെ ഇഫക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇതില് അതായത് ഇപ്പം അവര് കുറച്ചും കൂടിപ്രായമായ ആളുകളായോണ്ടവർക്ക് എഫക്ടീയ്തില്ലേലും എന്നെ പോലുള്ള സ്റ്റുഡൻസിന് നല്ല രീതിക്കത് ഇഫക്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലെ കാഴ്ച്ച കുറയും പിന്നെ പഠിത്തത്തിലെ കോൺസൻട്രേഷൻ കുറയും അപ്പം അത് കാര്യങ്ങളെല്ലാം പിന്നെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ആർക്കും ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും ഒന്ന് വിളിക്കണമെങ്കിൽ വരെ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാവരും ലാൻഡ് ഫോണോ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം വെച്ചിട്ടാർന്നു ചെയ്തോണ്ടിരുന്നേ ഇനി അതുപോലും ഇല്ലാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ കത്തയച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന സ് ഒരു ടൈമുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര ആർഭാടമായിട്ടാണ് നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പത്താളുകൾക്ക് സംവിധാനങ്ങള് കൂടി പോണതാണ് പ്രശ്നം അതുകൊണ്ട് എല്ലാവരും ഫോണുമായിട്ടും ഉള്ള ഉപയോഗങ്ങള് കുറക്കാൻ ബാക്കി സാങ്കേതികവിദ്യകള് പഠിക്കുമ്പോളൊക്കെ നമ്മുടെ എ ഐ പോലത്തെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കുറക്കുക ഇതൊരു വിനോദമായിട്ട് ആരും കാണാതെ നമ്മുടെ നമ്മടെയൊര് ലൈഫിലെ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇപ്പം നമ്മള് ഉറങ്ങുന്നു നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മള് നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മള് ഉറങ്ങുന്നുണ്ട് അതുപോലെ നമ്മുടെ ലൈഫ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി മാത്രം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക അമിതമായിട്ട് ഒരു കാര്യവും ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് പിന്നെ ഈ പറഞ്ഞ പോലേ പണ്ട് പണ്ട് പറഞ്ഞല്ലോ പണ്ടൊക്കെ ആൾക്കാരുടെ ആരോഗ്യ നിലയും കാഴ്ച്ചയൊക്കെ എല്ലാം നല്ല ശക്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവർക്ക് ഓർമ്മകൾ നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഇതുപോലെ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വന്നപ്പഴ് തൊട്ടാണ് എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങള് തുടങ്ങി ലൈക്ക് ഉപയോഗിക്കാതിരുന്നോണ്ടാണ് എല്ലാവരും അങ്ങനെ നിന്ന് കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വന്നതുകൊണ്ടാണ് പല കുട്ടികൾക്കും ഓർമ്മശക്തി കുറയുന്നത് അൽഷിമേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടന്ന് തന്നെ വരുന്നത് അതുകൊണ്ട് എല്ലാവരും അത് എല്ലാവരും ഫോണിൻ്റെ ഉപയോഗം പരമാവധിയൊന്ന് കുറക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്